പൊതുവെ ആഘോഷങ്ങളുമായിട്ട് വലിയ ആഘോഷങ്ങളോട് വലിയ താൽപര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ വിവാഹമാണെങ്കിലും ജന്മ ജന്മ ദിനങ്ങളാണെങ്കിലും മറ്റ് നേട്ടങ്ങളെല്ലാം വളരെ ലളിതമായിട്ട് വീട്ടുകാർ മാത്രമായി നല്ല ഭക്ഷണം വയ്ക്കുക എന്നതിന് അപ്പുറത്തേക്ക് എൻ്റെ ആഘോഷങ്ങൾ നീളാറില്ല ജന്മദിനങ്ങളിൽ ഞാൻ എൻ്റെ എനിക്കേറ്റവും പ്രിയപ്പെട്ട ആൾക്കാർക്ക് കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങൾ നൽകാറുണ്ട് അവരെനിക്ക് സമ്മാനങ്ങൾ നൽകാറുണ്ട് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടത് പുസ്തകങ്ങളായത് കൊണ്ട് തന്നെ അവർ എനിക്ക് പുസ്തകങ്ങളാണ് കൂടുതലായിട്ട് സമ്മാനങ്ങളായിട്ട് ലഭിക്കാറുള്ളത് വലിയ ആഘോഷങ്ങളുടെ അനുഭവങ്ങളൊന്നും എനിക്ക് പറയാനില്ല എന്നാൽ പോലും എൻ്റെ കഴിഞ്ഞ ബർത്ഡേയ്ക്ക് കഴിഞ്ഞ എൻ്റെ ജന്മദിനത്തിന് എനിക്ക് ഒരുപാട് പുസ്തകങ്ങളും ഒരു ഇങ്ക് പേനയെല്ലാം സമ്മാനമായിട്ട് ലഭിച്ചു ഒരുപാട് ചോക്ലേറ്റ്കൾ സമ്മാനമായിട്ട് ലഭിച്ചു അതെനിക്ക് വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്കൊരു മറക്കാനാവാത്തൊരു അനുഭവമായിരുന്നു